അതെ ആണല്ലോ ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ പറയൂ മാം

ആണോ ഓക്കെ അപ്പം എങ്ങനെ അടുത്ത ആഴ്ചയാണോ പോവുന്നത് അതോ അടുത്ത ആഴ്ചയല്ലേ ആ അതെയോ അടുത്തതിൻ്റെ അടുത്ത ആഴ്ച ഇവർക്ക് എക്സാം തുടങ്ങുവാണ് എങ്ങനെയാണ് മോന് അതുമായിട്ടങ്ങ് കോപ്പ് അപ്പ് ചെയ്ത് പോയിക്കോളുമല്ലോ

ആ ഓക്കെ ലീവ് എടുത്തോ പിന്നെ ഒരു കാര്യം ഈ ഈ ആഴ്ചകൾ ഈ ഈ നാല് ദിവസങ്ങളിൽ ഇവർക്ക് ഏതായാലും അടുത്തതിൻ്റെ അടുത്ത വീക്ക് എക്സാം ആയതുകൊണ്ട് അടുത്ത വീക്ക് മൊത്തവും റിവിഷൻ കൊടുക്കാനാണ് ഞാൻ ക്ലാസ് ടീച്ചേർസിനോടോക്കെ പറഞ്ഞിട്ടുളളത് അപ്പോൾ റിവിഷൻസ് ക്ലാസ്സിൽ കണ്ടക്റ്റ് ചെയ്യും ഏ അതുകൊണ്ട് ക്ലാസ് ടീച്ചറിനെ ഒന്ന് വിവരം അറിയിക്കുക അങ്ങനെ ആണെങ്കിൽ ഈ റിവിഷൻ നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വാട്ട്സാപ്പ് ചെയ്യാനോ അങ്ങനെ എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം കൂടി നോക്കിയാൽ അതുകൂടെ നല്ലതല്ലേ ആ നിങ്ങൾ ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചുവരുമ്പം വീട്ടിലിരുന്ന് അതൊന്ന് വർക്ക് ഔട്ട് ചെയ്താൽ എക്സാമിന് അവന് കുറച്ചുകൂടി എളുപ്പം ആയിരിക്കും ഞാൻ പെർമിഷൻ തന്നേ ആ ഞാൻ പെർമിഷൻ തന്നു എന്ന് ആ ആ ഓക്കെ ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്യണം ഞാൻ പെർമിഷൻ തന്നു എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരൂ ഹാപ്പി ജേർണി